ഹലോ ഇത് റോയൽ ഗ്യാസ് ബുക്കിംഗ് ഏജൻസയല്ലേ മല്ലപ്പള്ളിയിലെ ആ ചേട്ടാ ഞാൻ വിളിച്ചതെന്നാന്ന് വച്ചാല് ഞാനാണെങ്കിൽ എൻ്റെ താമസം ഞാൻ കുടുംബസമേതം താമസം നഗരത്തിലേക്ക് മാറുകയാണ് ടൗണിലേക്ക് മാറുകയാണ് കാരണം ഞങ്ങളിവിടെ വില്ലേജ് അല്ലെങ്കില് ഈ ഗ്രാമപ്രദേശത്ത് ഞങ്ങള് വാടകയ്ക്കാണ് വന്ന് താമസിക്കാന് തുടങ്ങിയത് അപ്പോള് നഗരത്തിൽ ഞങ്ങളൊരു വീട് പണിയുന്നുണ്ടായിരുന്നു അപ്പോള് അത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങള്ക്ക് മറ്റ് എവിടേലും താമസിക്കണമല്ലോ അപ്പോള് ഞങ്ങൾ വാടകയ്ക്ക് വേണ്ടി ഗ്രാമപ്രദേശത്തോട്ട് വന്നതാണ് കാരണം കുറച്ചുകൂടി തുച്ഛമായിട്ടുള്ള രീതിയില് വാടക ഞങ്ങള്ക്ക് കിട്ടും കാരണം വീടുപണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വലിയ ഭയങ്കര വലിയൊരു സംഖ്യ പൈസ ഞങ്ങള്ക്ക് വാടകയ്ക്ക് കൊടുക്കാന് പറ്റത്തില്ല അതുകൊണ്ട് തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടില് വാ വാടകയ്ക്ക് കിട്ടിയപ്പോൾ ഞങ്ങള് ഗ്രാമത്തിലേക്ക് വന്നതാണ് ഇപ്പോള് ഞങ്ങളുടെ വീടുപണി നഗരത്തിലെ കഴിഞ്ഞു അപ്പോള് ഞങ്ങൾ നഗരത്തിലേക്കു ചേക്കേറുകയാണ് നഗരത്തിലേക്ക് താമസം മാറുകയാണ് അപ്പോള് എനിക്കാണെങ്കില് എൻ്റെ പഴയ അതുപോലതന്നെ എ എൻ്റെ എൻ്റെ നിലവിലെ എൻ്റെ ഗ്യാസ് ബുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റദ്ദാക്കേണ്ടതുണ്ട് അപ്പോള് അതിനുവേണ്ടിയ പുതിയ നഗരത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഗ്യാസ് ഏജൻസിയായിട്ട് അല്ലെ അവിടത്തെ ഇതുമായിട്ടാണല്ലോ ബന്ധപ്പെടേണ്ടത് അപ്പോള് എനിക്കാണെങ്കില് എന്നായിരുന്നു പുതിയ എൻ്റെ ഗ്യാസ് എന്തായിരുന്നു റഫറൻസ് നമ്പർ എനിക്ക് കിട്ടണം ഒരു പുതിയൊരു അക്കൗണ്ട് ഗ്യാസിൻ്റെ ഇത് എനിക്ക് തുടങ്ങണം അപ്പോള് അതിനുവേണ്ടി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുതരണം അപ്പോള് ഞാനാണെങ്കില് എന്നായിരുന്നു നമ്മുടെ ഗ്യാസാണ് മാക്സിമം ഉപയോഗിക്കുന്നത് ഇപ്പോള് ഈ ചില നഗരങ്ങളിലെക്കെ ഈ പൈപ്പ് ലൈൻ വഴിയുള്ള സംവിധാനങ്ങള് തുടങ്ങിയെന്നുള്ളതൊക്കെ ഞാന് കേട്ടു പക്ഷേ അതൊന്നും വലിയ രീതിയിലോട്ടൊന്നും ആയിട്ടൊന്നുമില്ല എന്നാലും എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും ഗ്യാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോള് എൻ്റെ പഴയ ഗ്യാസിൻ്റെ ഇത് മാ മാറ്റണം അതുപോലെതന്നെ എൻ്റെ ഞാനെൻ്റെ ബുക്കിംഗ് പഴയ ബുക്കിംഗ് റഫറൻസ് നമ്പർ ഞാൻ നൽകാം അത് എന്താണ് പഴയത് റദ്ദാക്കിയിട്ട് പുതിയതെനിക്ക് സ്ഥിരീകരിച്ച് തരണം പുതിയതെനിക്ക് ചെയ്തു തരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് അവിടത്തെ ഗ്യാസേജൻസിയായിട്ട് ബന്ധപ്പെട്ട് പുതിയ ബുക്കിംഗ് നമ്പറും റഫറൻസ് നമ്പറൊക്കെ കൊടുത്തിട്ട് എനിക്കെൻ്റെ ഗ്യാസ് ഇതെയ്യാന് പറ്റൂള്ളൂ അപ്പോള് തീർച്ചയായിട്ടും അതിനുവേണ്ടിയ സഹായങ്ങള് ചെയ്തുതരണം